ആ അതെ ആ മാഡം പേരൊന്നു പറയുമോ ഓക്കെ മാഡം മകൻ്റെ പേരൊന്നു പറയുമോ ഞാൻ നോട്ട് ചെയ്തതെന്താണെന്ന് ഒന്ന് നോക്കാനായിരുന്നു

ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് മാഡം ഞാൻ ആ കോൺടാക്ട് നമ്പർ അന്നെഴുതിത്തന്നപ്പോൾ ഞാൻ എഴുതി വച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ ആ നമ്പര് നോക്കിയിരിക്കുകയായിരുന്നു വിളിക്കാൻ വേറെ ഒരു വഴിയും ഇല്ലായിരുന്നു മാഡം അത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഞാനത് എങ്ങനെ ഒന്നറിയിക്കും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു മാഡം എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ യൂട്രസ് സംബന്ധമായിട്ട് അപ്പോൾ എനിക്ക് നല്ല രീതിയ്ക്ക് റെസ്റ്റ് വേണ്ടി വന്നു അപ്പോൾ എനിക്ക് മെഷിൻ ചവിട്ടാൻ ഒട്ടും പറ്റാണ്ടായിപ്പോയി എൻ്റെ കയ്യിൽ തന്ന അത്യാവശ്യം തുണികളെല്ലാം ഞാൻ എല്ലാവരുടേയും നമ്പരൊക്കെ കളക്ട് ചെയ്ത് ഓരോരുത്തരെയായിട്ട് വിളിച്ചിട്ട് ഞാനത് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മാഡം ഇല്ല മാഡം മേടിച്ചു വച്ചപ്പോൾ എനിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നൊരു ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെയായിട്ട് പോയപ്പോൾ എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് അർജൻ്റായിട്ട് ഒരു സർജറി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡി ആൻ്റ് സി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ബോഡിയത്രയും വീക്കാണ് മാഡം മാഡം അതെനിക്ക് മനസ്സിലാവും മാഡം പക്ഷെ വേറെ എനിക്ക് ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ടാണ് ഇനി എന്നാണ് മാഡം അത് സ്കൂളിലെത്തേയ്ക്ക് ഒരു രണ്ടു ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു സെൻ്ററുണ്ട് അത് എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് കളക്ട് ചെയ്ത് ഒന്നവിടെ കൊടുക്കാമോ മാഡം മൂന്നാലു ദിവസം ഉണ്ട് മാഡം നമ്മളെ ഇവിടെത്തന്നെ ഒരു ഷോപ്പുണ്ട് മാഡം രണ്ടു ഒരു രണ്ടു ദിവസമൊക്കെ മാക്സിമം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തോനെ പേരിരുന്നിട്ട് സ്റ്റിച്ച് ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ മാഡത്തിന് പെട്ടെന്നു കിട്ടും ഞാനെനിക്ക് അങ്ങോട്ട് വിളിച്ചിത് പറയാനായിട്ട് ഞാൻ നമ്പർ നോക്കിയിട്ട് കിട്ടിയതും ഇല്ല മാഡത്തിനെ കോൺടാക്ട് ചെയ്യാൻ വേറെ ഒരു വഴിയും ഇല്ലാതെ ആയിപ്പോയി പെട്ടെന്നിങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് മാഡം അതെ അന്ന് ഞാനതങ്ങ് വിട്ടുപോയി ആ നമ്പര് ഇങ്ങോട്ട് വന്നുകൊളളാം എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഇത് വരുമെന്നു വിചാരിച്ചില്ലല്ലോ മാഡം അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് മാഡം രണ്ടാഴ്ച കഴിഞ്ഞു വരാം എന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അന്ന് നമ്പര് നോട്ട് ചെയ്തു വച്ചില്ല പെട്ടെന്നായിരുന്നു ഈയൊരാവശ്യം വന്നതും പിന്നെ ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം അറിയാം എന്നുള്ള ആൾക്കാരെയൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് എല്ലാം തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് മാഡം കാരണം വാങ്ങിച്ചു വച്ചിട്ട് എന്തായാലും ഇനി ഈ അടുത്തകാലത്തൊന്നും എനിക്കിപ്പോൾ തയ്ക്കാനായിട്ട് പറ്റത്തില്ല ആ അഡ്വാൻസ് ചെയ്തിരുന്നു അതും ആ ഞാൻ തയ്ക്കാൻ വേണ്ടിയിട്ട് ലൈനിങ്ങ് എല്ലാം എടുത്തു വച്ചതാണ് മാഡം ലൈനിങ്ങ് എല്ലാമുണ്ട് അപ്പോൾ നമുക്ക് അതിലെങ്ങനെയാണെന്നു വച്ചാൽ നോക്കിയിട്ട് ആ ലൈനിങ്ങിൽ കുറച്ചിട്ട് ബാക്കി പൈസയും തുണിയും കൂടി ഞാൻ തരാം തൊട്ടു താഴെത്തന്നെ കോൺടാക്ട് നമ്പറും ഞാൻ തരാം മാഡം അവർ സ്റ്റിച്ച് ചെയ്തു തരും കറക്റ്റ് സമയത്തു തരും ഞാനും കൂടി വിളിച്ചിട്ട് പറയാം അവരുടെ അടുത്ത് ഓക്കെ അപ്പം മാഡം എന്നുവരും

ഇല്ലയില്ല ഉറപ്പായിട്ടും ഉറപ്പായിട്ടും രണ്ടു ദിവസത്തിനുള്ളിൽ തരീക്കുവാനുള്ളത് ചെയ്യാം മാഡം ഓ ഞാൻ ആ ശരി ശരി മാഡം